ഞാന് പുറത്ത് പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്ന ആളേ അല്ല എന്റെ ഭര്ത്താവാണ് വീട്ടിലേക്കുള്ള എല്ലാ പച്ചക്കറികളും വീട്ടിലത്തെ മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു വരൽ അതുകൊണ്ട് സാധനങ്ങളുടെ വില ഒന്നും ഒന്നും അറിയില്ല വില കൂടിയോ എന്നോ കുറഞ്ഞിനോ എന്നോ ഒന്നും അറിയില്ല പിന്നെ എന്നെ എന്റെ പുയ്യാപ്ലക്ക് പലചരക്കിന്റെ കടയായത് കൊണ്ട് തന്നെ പിന്ന പച്ചക്കറിയും പലചരക്ക് എല്ലാ സാധനങ്ങളും കടയിൽ നിന്ന് തന്നെ എടുക്കലാണ് നമ്മൾ അതുകൊണ്ട് പിന്നെ കൂടുതലായിട്ടൊന്നും അറിയില്ല ചില സമയങ്ങളില് തക്കാളിക്കും ഉള്ളിക്കൊക്കെ നല്ല വില ആയിരിക്കുമല്ലോ അത് കൂടുമ്പോൾ ചില സമയത്ത് നല്ല വില ഒക്കെയാണല്ലോ തക്കാളിക്കും ഉള്ളിക്കൊക്കെ പിന്നെ ഞങ്ങൾ ഓണ്ലൈൻ ആയിട്ട് പല തുണികൾ വാങ്ങലുണ്ട് ചിലപ്പമൊക്കെ സൈസും കളറുമൊക്കെ നല്ലത് നല്ലതായിട്ടുള്ള ഡ്രസ്സ് തന്നെ കിട്ടലുണ്ട് പക്ഷേ ചില സമയത്ത് ഡ്രസൊക്കെ പഴയതുപോലെ അല്ലെങ്കിൽ നമ്മൾ വിജാരിച്ച പോലെയൊന്നും ആവില്ല പക്ഷേ കടയിൽ പോവുകയാണെങ്കിൽ അതിന് വേണ്ടി നമ്മൾ ഒരുപാട് സമയം മിനക്കെടേണ്ടി വരും കുറേ സമയം അതിനുവേണ്ടി പോവുകയും ചെയ്യും പിന്നെ ചില കടകളില് പോയാല് സ്റ്റാഫുകള് സാധനങ്ങള് കാട്ടിത്തരാന് കാണിച്ച് എടുത്ത് തരാന് നല്ല മടിക്കാരാണ് കുറേ നോക്കി കുറേ നേരം വലിച്ചിട്ട് നോക്കുക തന്നെ വേണ്ടി വരും പിന്നെ ഓണ്ലൈനിലൂടെ സാധനങ്ങൾ ഓര്ഡറ് ചെയ്യുക ആണെങ്കിൽ നമ്മൾ എന്താണോ വേണ്ടത് അതിന്റെ ഫോട്ടോ അടക്കം അതിലുണ്ടാവും അത് കൊണ്ട് തന്നെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാന് കഴിയും പിന്നെ ചില സമയത്തൊക്കെ കുറേ സാധനങ്ങള് വിലക്കുറവിലും കിട്ടും അതൊക്കെ ഓണ്ലൈനിന്റെ ഒരു മെച്ചമാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ഓണ്ലൈനായിട്ടും കടയിലായിട്ടും സാധനങ്ങള് വാങ്ങാറുണ്ട്